ഹലോ പിന്നെ എൻ്റ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പം അവിടെ പിടിയും കോഴിയും ഒക്കെ ഉണ്ടോ ഉണ്ടാക്കുന്നുണ്ടോ ആ എത്രയാണ് റേറ്റ് വരുന്നത് അതിനൊക്കെ ആ അപ്പം നമുക്ക് ഒരു പിടിയും കോഴിയും എന്ന് പറയുമ്പം എങ്ങനെയാണ് അത് അളവ് എങ്ങനെയാണ് ശരിയാവുക ആ അങ്ങനെ ആകുമ്പം നമുക്ക് ഒരു ഒര് അമ്പതെണ്ണം വേണം അമ്പത് പേർക്ക് ഉള്ളത്

ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരണം നമുക്ക് നമ്മൾ വൈകുന്നേരം ആണ് ഫംഗ്ഷൻ വൈകുന്നേരം ഒര് അഞ്ച് മണിക്ക് അഞ്ചര ആറ് മണീൻറ്റുള്ളില് എത്തിക്കണം എട്ട് മണിക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ പിന്നെ ആ നിങ്ങള് കുറച്ച് എന്തെങ്കിലും ചെറിയ തോതിലാക്കി

അങ്ങനെ നമുക്ക് പിടിയും കോഴിയും വേണം പിന്നെ കുറച്ച് ഐസ്ക്രീമ് വേണം കുറച്ചൊരു പത്ത് ബിരിയാണി വേണം പിന്നെ പിന്നെ കുറച്ച് ആ പിന്നെ കുറച്ച് വെജ് വെജ് ഭക്ഷണം വേണേ വെജ് വെജ് വേണം വെജ് ഐറ്റംസും വേണം പറയുവ ആ ആ അത് എല്ലാം വൈകുന്നേരം ആകുമ്പം വീട്ടിൽ എത്തിക്കണം ഒര് ആറ് ആറ് മണി ആകുമ്പത്തേക്ക് അഞ്ചര ആറ് മണിക്കുളിൽ എത്തിക്കണം അപ്പോളേ ആൾക്കാറ് വരാൻ തുടങ്ങുവല്ലോ കാറ്ററിങ്ങിന് ആൾക്കാരുണ്ടോ നിങ്ങളുടെ അടുത്ത് ആ ഒര് പത്താള് അവരും വന്നോട്ടേ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ മാനന്തവാടി മാനന്തവാടി നിങ്ങൾ വന്നിട്ട് ഫോൺ നമ്പർ ഉണ്ടല്ലോ നിങ്ങള് വിളിച്ചാൽ മതി അഡ്വാൻസ് ആ ഞാന് അയച്ച് തരാം ഏഹ് എത്ര വേണം

എത്ര എത്ര എത്ര എത്ര അയക്കണം അപ്പം അല്ലാ ഇതിപ്പം എല്ലം കൂടി മൊത്തം എത്രയാകും അല്ല എന്നാലും നമുക്ക് സുമാറ് അറിഞ്ഞാല് ബഡ്ജറ്റ് കാണാണമല്ലോ ആ ഐസ്ക്രീമ് ആ എല്ലം വേണം ആ കുറച്ച് ചപ്പാത്തി കുറച്ച് ചപ്പാത്തി കഴിക്കുന്നവര് ഉണ്ടാകുമല്ലോ കുറച്ചൊര് അമ്പത് ചപ്പാത്തിയും വന്നോട്ടെ ആ അത് വേണം വേണം കുറച്ച് കുറുമയും കുറുമ കുറുമ ആയിക്കോട്ടെ നിങ്ങൾ വരുമ്പം ഫോൺ നമ്പർ അഥവാ തിരക്കില് ഫോണ് വിളിച്ചിട്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുറത്ത് ഇറങ്ങി നിൽക്കാം ആയിക്കോട്ടെ അല്ല തിരക്കിൻ്റെ ഇടയിൽ ഫോണൊന്നും കയ്യിൽ ഉണ്ടായി എന്ന് വരില്ല ആൾക്കാരെല്ലം വരാൻ തുടങ്ങിയാൽ തിരക്കല്ലേ മോളെ ഒരു കല്യാണത്തിൻ്റ കല്യാണ ആവശ്യമാണ് അത് കല്യാണത്തിൻ്റ തലേ ദിവസത്തെ പരിപാടി ആണിത് ആ ആ നിങ്ങളുടെ അടുത്ത് മറ്റേ ഈ ഇതിൻ്റ ഡെക്കറേഷൻ്റ ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ല ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടെ എങ്കിലും നിങ്ങളുടെ ഇതിൽ തന്നെ കുറച്ച് കിട്ടുവാണെങ്കില് ഒര് നല്ലതായിരുന്നു നമുക്ക് സാമ്പത്തികം എല്ലം കുറച്ച് കുറവാണ് പിന്നെ നമ്മളുടെ ആവശ്യങ്ങള് നടത്തണമല്ലോ പിന്നെ കടമാണെങ്കിലും എല്ലാം നടത്തണ്ടേ അത് കാരണം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ വിവരം അറിയിച്ചാൽ മതി അത് ഇത് പിന്നെ അടുത്ത മാസം അഞ്ചാം തീയ്യതി ആണേ അഞ്ചാം തീയ്യതി അപ്പം നാലാം തീയ്യതി വൈകുന്നേരം ആണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലം വേണ്ടത് ഓ ആയിക്കോട്ടെ എന്തായാലും വേണല്ലോ നമുക്ക് നമ്മളുടെ ആവശ്യം നടക്കണ്ടേ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാൻ വിളിച്ചം വിളിക്കാം ഞാന് കേട്ടോ ആ ശരി ശരി ആ